എനിക്ക് നൃത്തം കളിക്കാൻ അറിയില്ല പക്ഷേ ഞാൻ കളിച്ചിട്ടുണ്ട് കാരണം സ്കൂൾ യുവജനോത്സവത്തിന് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കുട്ടികൾ പഠിപ്പിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നൃത്തം കളിച്ചിട്ടുണ്ട് അതുപോലെതന്നെ കുടുംബശ്രീയിൽ കുടുംബശ്രീയിൽ ഞങ്ങൾ പിന്നെ കുടുംബശ്രീ വാർഷികത്തിന് എല്ലാ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും ഓരോ പരിപാടി വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് പഠിച്ച് നല്ല രീതിയിൽ കാരണം അങ്ങനെ വലിയ അമ്മമാരായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കളിച്ച് അത് എല്ലാവരും എല്ലാവരുടെയും മുന്നിലും അവതരിപ്പിച്ച് നല്ല ഒരു എന്താ പേര് കിട്ടി കാരണം നമുക്ക് ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കൈ കൊണ്ടും കാല് കൊണ്ടും സ്റ്റെപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ വലിയ അമ്മമാരായതുകൊണ്ട് അത് പിന്നെ വഴങ്ങി കിട്ടില്ല കാരണം കൈ പോകുന്നിടത്ത് കണ്ണ് പോകില്ല കണ്ണ് പോകുന്നിടത്ത് കാല് പോകില്ല എന്ന് പറഞ്ഞ ഒരു രീതിയാണ് കാരണം എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിച്ച് ഞങ്ങൾ നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്